ഹലോ അതേല്ലോ

വേണോ അപ്പം എത്ര പേര് ഉണ്ട് നിങ്ങൾ അഞ്ച് പേര് ആ അപ്പം അഞ്ച് പേര്ക്കുള്ള താമസിക്കാന് പറ്റിയ വീട് ആ ആ അത്

ഏ വീട് വേണം അപ്പം നിങ്ങൾ മാക്സിമം എത്ര രൂപ വരെ ഉള്ളതാണ് നോക്കുന്നത്

ആ വ്യത്യാസമുണ്ട്

ആ ഇവിടെ നമ്മൾ ഓരോ സൗകര്യം അനുസരിച്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആ ആ അപ്പം ആ വേണം അപ്പം നാല് രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ ഇടക്കൊക്കെ ആവും

ഞാന് നമ്മൾ ആ അത് കൊടുക്കേണ്ടി വരും വെള്ളത്തിന്റെ കൊടുക്കണ്ട എന്നാൽ കറന്റ് ബില്ലെക്കെ നമ്മളടയ്ക്കേണ്ടി വരും

ആ അഞ്ച് രൂപയില് നിൽക്കും അഞ്ച് രൂപയില് നിൽക്കും അപ്പം താല്പര്യം ഉണ്ടെങ്കില് വന്ന് വീട് കാണുക ആ കണ്ടതിന് ശേഷം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഞങ്ങളുടെ ഇതാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളെന്തുവാണ് പറയുവാ

ആ ആ ആ അത് നമുക്ക് നമുക്കഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം

ജോയിൻ ചെയ്യാൻ ഇരുപതിനല്ലേ ആ അപ്പം ഇതല്ലേ നമുക്കല്ലേ പിന്നെ വേറെ വീട് നോക്കണം അപ്പം പിന്നെ അപ്പം ഇത്രേം ഒത്തിരി സൗകര്യം ഒന്നും കാണത്തില്ലായിരിക്കും ഓരോ സൗകര്യം കൂടും തോറുമാണ് റേറ്റ് കൂടിക്കൂടി വരുന്നത് ആ ആ അപ്പം ആ ശരി എന്നാൽ